ആ ഹലോ സാറേ ഗുഡ് മോർണിംഗ് എന്നാ സാറേ വിളിച്ചത് ആ ആ ഒരാൾക്ക് പുള്ളിയുടെ ഭാര്യയുടെ ഓപ്പറേഷനുണ്ട് ഒരാൾക്ക് മോൻറ്റെ ഓപ്പറേഷൻ അങ്ങനെ രണ്ട് പേര് ലീവ് ചോദിച്ചിട്ടുണ്ട് സാറേ എന്താ സാറേ ആ അതിന് പകരത്തിന് അല്ലേ പകരത്തിന് ആളെ അല്ലേ അതെന്താ സാറേ പ്രത്യേകിച്ച് എന്തെങ്കിലും വല്ല കാര്യങ്ങളൊ ഉണ്ടോ വല്ല മീറ്റിങ്ങോ അങ്ങനെ വല്ലതും ഉണ്ടോ ഓക്കെ അ അ ആ അ

ആ അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ സാറേ സംസാരിച്ചിട്ടെ അവർക്ക് മ് മ് വരാൻ പറ്റുമോയെന്നു ചോദിക്കട്ടെ ഇല്ലെങ്കിൽ പകരത്തിന് ഞാൻ ആളെ റെഡിയാക്കി തരാം ആ രീതിയിലുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം സാറെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്നു പറഞ്ഞായിരുന്നല്ലോ സാറെ എന്തുവാ എന്തിൻ്റെ മീറ്റിങ്ങാണ് സാറേ

ട്രെയിനിങ്ങല്ലെ അ അ ആ ആ ആ ആ ഓക്കെ സാറേ ഞാൻ എന്തൊക്കെയായാലും അവരെ അറിയിക്കാം എന്നിട്ട് അവരുടെ അഭിപ്രായം ചോദിക്കട്ടെ അതു സാറിനെ ഞാൻ വിവരം അറിയിക്കാം സാറേ എത്ര മണിക്കാണ് സാറെ മീറ്റിംഗ് തുടങ്ങുന്നത് ഓ ഓ പല പല പല സെക്ഷനായിട്ട് അല്ലേ ആ ആ ഓക്കെ ഓക്കെ ആ ആ അപ്പം ഫുഡ്ഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലേ സാറേ എവിടെ വെച്ചാണ് സാറെ മീറ്റിംഗ് എല്ലാ നമ്മുടെ എല്ലാ ടീമുകളെയും അറിയിക്കണ്ടെ ആ അ അ അ അറിയിച്ചല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണുമായിരിക്കും അല്ലേ അ ആ പല പല സെക്ഷൻ തിരിച്ച് അല്ലേ ആയിക്കോട്ടെ സാറെ ഞാൻ എന്തെങ്കിലും നമ്മുടെ എല്ലാ സെക്യൂരിറ്റി ആളുകളെയും ഞാൻ അറിയിക്കാം അറിയിച്ചിട്ട് എത്തിച്ചോളാം എല്ലാവരുടെ അടുത്തും പറയാം ലീവ് എടുക്കരുതെന്നു തന്നെ പറയാം ഇനി എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സാറിനെ നേരിട്ടു വന്നു കാണാനായിട്ട് അറിയിക്കാം അങ്ങനെ പോരെ ശരി സാറെ അങ്ങനെ ആണേൽ നാളെ കാണാം ശരി ശരി ഓക്കെ സാർ ശരി ഓക്കെ ഗുഡ് നൈറ്റ്